ഒരു കുടുംബത്തിലെ സ്ത്രീ അവർ ആ വീട്ടിലെ വിളക്കാണ് എന്നാണു പഴമക്കാർ പറയാറുള്ളത് അതായത് ഒരു വീട്ടിലെ സ്ത്രീ ആണ് വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കലും അടുക്കിപ്പെറുക്കി വെയ്ക്കലും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അതേ സമയം പുരുഷനാവട്ടെ പുറത്തു പോയി ജോലി ചെയ്ത് സമ്പാദിച്ച് കൊണ്ട് വന്ന് സ്ത്രീ അവരുടെ അമ്മയെ അല്ലെങ്കിൽ ഭാര്യയെ ഏൽപ്പിക്കുന്നു അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള സ്ത്രീ ആണെങ്കിൽ ആ വീട്ടിൽ നല്ല ഐശ്വര്യവും നല്ല അ സാമ്പത്തികമായ വളർച്ചയും ഉണ്ടാകും കുടുംബത്തിലെ സ്ത്രീകൾ നല്ല രീതിയിൽ പെരുമാറുകയാണെങ്കിൽ മാത്രമേ ആ വീട് നല്ല രീതിയിൽ നിലനിൽക്കുകയുള്ളൂ അതേസമയം ഇന്നത്തെ ജനത അങ്ങനെയല്ല പുരുഷന്മാർ ചെയ്യുന്നത് എല്ലാ ജോലിയും സ്ത്രീകളും ചെയ്യുന്നുണ്ട് അത് അതുകൊണ്ട് സ്ത്രീയും പുരുഷനും തുല്ല്യമായി ജോലികൾ ചെയ്യണമെന്നാണ് ഇന്നത്തെ ജനതയുടെ കാഴ്ച്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വിവാഹജീവിതം ദാമ്പത്യജീവിതം കുടുംബജീവിതം നല്ല രീതിയിൽ എത്തിപ്പെടാത്തത് ജോലി വിതരണം മുഴുവനായിട്ടും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒപ്പം പങ്കുവെയ്ക്കാൻ പറ്റുന്നില്ല കുറേ കാര്യങ്ങൾ സ്ത്രീകൾ തന്നെ ചെയ്താലെ അത് വൃത്തിയാവുള്ളു എന്നതാണ് അതിൻ്റെ സത്യം കുട്ടികളെ ലാളിക്കാനായിക്കോട്ടെ കുട്ടികളോട് പെരുമാറുന്നതിനായിക്കോട്ടെ കുട്ടികളുടെ മനസ്സ് മനസിലാക്കാനും പെട്ടെന്ന് സ്ത്രീകൾക്കാണ് മനസിലാവുക അതേസമയം പുരുഷന്മാർക്ക് പെട്ടെന്ന് ദേഷ്യം വരുകയും അവർ കുട്ടികളോടായിക്കോട്ടെ ബാക്കി വീട്ടിലുള്ള വ്യക്തികളോടായിക്കോട്ടെ വളരെ അധികം ദേഷ്യപ്പെടുകയും അത് വീട്ടിലെ പ്രശ്നങ്ങൾക്കും വീട്ടിലെ വഴക്കുകൾക്കും എത്തിച്ചേര് കാരണമാകുന്നു അതേസമയം സ്ത്രീകളാവട്ടെ അനുനയത്തിൽ സംസാരിച്ച് അവരെ ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് വളരെ സൗമ്യമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ധാരാളം കുടുംബങ്ങൾ സൗമ്യമായി നല്ല രീതിയിൽ എത്തിപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ ഇന്നും ജീവിക്കുന്നുണ്ട് അതേ സമയം പഴമക്കാർ പറയുന്നതു പോലെ നമ്മൾ വീട്ടിന് പുറത്തു പോകാതെ സ്ത്രീകൾ വീട്ടിന് പുറത്തു പോവാതെ ഒരു കാലമുണ്ടായിരുന്നു പണ്ട് അന്നൊക്കെ അത് പറ്റുമായിരുന്നു കാരണം അന്ന് നമ്മൾക്ക് വെ ആവശ്യങ്ങളും കുറവായിരുന്നു നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ അച്ഛന്മാരാണ് പോയി ചെയ്തോണ്ടിരുന്നത് അതേസമയം ഇന്നങ്ങനെ അല്ല അച്ചന്മാരും അതേപോലെ സ്ത്രീ അമ്മമാരും ഒരേപോലെ കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും സ്ത്രീകൾക്ക് ധാരാളം വിദ്യാഭാസം കൊ നേടിയത് കൊണ്ട് ഓരോരുത്തരും അവരുടേതായ മേഖല എങ്ങനെയെല്ലാം തിളങ്ങാൻ പറ്റുമോ അതേപോലെയെല്ലാം തിളങ്ങന്നതുമുണ്ട് അതുകൊണ്ട് അച്ഛനും അമ്മയും സ്ത്രീയും പുരുഷനും ഒരേപോലെ വർക്ക് ചെയ്യാനാണ് ഇപ്പോഴത്തെ ജനത ഇഷ്ടപ്പെടുന്നതും അവർ സഹകരിച്ച് പോകുന്നതുകൊണ്ട് വളരെ അധികം നല്ല രീതിയിൽ അവരുടെ സാമ്പത്തിക ഉന്നതിയും കുടുംബ അന്തരീക്ഷവും എല്ലാം സൗമ്യമായി തീരുന്നു അതേസമയം സ്ത്രീകൾ പുറകിലോട്ടും പുരുഷന്മാർ മേധാവിത്വം കാണിക്കുകയാണെങ്കിൽ ആ വീടുകളിൽ വളരെ അധികം വിഷമങ്ങൾ വരാറുണ്ട് നമ്മടെ ചുറ്റുപാടുകളിൽ കാണുന്ന വ്യക്തികളാവട്ടെ ചുറ്റുപാടുകളിൽ കാണുന്ന വീടുകളിലാവട്ടെ അവരുടെ അന്തരീക്ഷം വളരെ മോശമാകുന്നത് ഒന്നുകിൽ സ്ത്രീ ഏറ്റവും ഉയരത്തിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുമ്പോൾ അവിടുത്തെ പുരുഷൻ അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ അവിടെ കലഹം ആരംഭിക്കുന്നു ഇതേപോലെ പുരുഷൻ അവൻ തൻ്റെ മേധാവിത്യം വീട്ടിൽ അടിച്ചേൽപ്പിക്കുകയും അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ വരുന്നു അതേസമയം സ്ത്രീയും പുരുഷനും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയോടെ പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ അധികം കുടുംബങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ മാതൃക ആക്കാൻ സാധിക്കും അങ്ങനെ എല്ലാ വീടുകളിലും സ്ത്രീയും പുരുഷനും ഒപ്പം ജോലി ചെയ്ത് നല്ല രീതിയിൽ നല്ല കുടുംബങ്ങളായി മാറാനാണ് എൻ്റെ ആഗ്രഹം